എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ട് എതാന്ന് വെച്ചിട്ടിണ്ടെങ്കില് ഫെയ്സ്ക്രീം ആണ് ഫെയ്സ്ക്രീമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരം ഫെയ്സ്ക്രീം ഉണ്ടല്ലൊ ഞാൻ പണ്ട് തൊട്ടെ ഉപയോഗിക്കുന്നത് ഫെയറൽലൗലിയാണ് എനിക്ക് ഇതേവരെ അതിലും നല്ല വേറൊരു ഫെയ്സ്ക്രീം ഉണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല കാരണമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാവരും ഇപ്പോൾ ഒരിടയ്ക്ക് ഫെയർ ൻ ലൗലി വെച്ചിട്ടുണ്ടെങ്കില് അതായത് ന്യൂ ബോൺ അതായത് അബോർഷൻ ആയിട്ടുള്ള കുട്ടികളെ ആ കുട്ടികളെ ക്രീം ഒക്കെ ആക്കിയിട്ട് അതായിത് ഇതാകുന്നെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് എൻ്റെ ഫെയ്സ്ക്രീമെന്ന് പറഞ്ഞാൽ ഫെയർ ൻ ലൗലി തന്നെയാണ് പണ്ടുതൊട്ടേ ആദ്യം എൻ്റെ അമ്മ യൂസ് ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തെങ്കിലും ഒരു ഫേസ്ക്രീമ് അപ്ലൈ ചെയ്തിട്ട് പൗഡർ ഇട്ടിട്ടുണ്ടെങ്കില് ഞാൻ അതുമാത്രമെ യൂസ് ചെയ്യാറുള്ളു പൗഡറും ഇടും അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് ഭയങ്കരായിട്ടുള്ള ഒരു ഗ്ലോ ഒക്കെ തോന്നാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് ഫേസ്ക്രീം വെച്ചിട്ടുണ്ടെങ്കില് അപ്പോൾ ഞാൻ ഇപ്പഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേസ്ക്രീം ആണ് ഫേസ്ക്രീമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫെയറൻലൗലിയെന്നുതന്നെയാണ് എനിക്ക് അതിന് ഒരു മോശവും ഇതുവരെ തോന്നിട്ടില്ല എനിക്ക് നല്ല അതായിത് എനിക്ക് കുറച്ച് നിറം വെച്ചുന്നൊക്കെ എനിക്കെന്നെ തോന്നിയിട്ടുണ്ട് എനിക്ക് ഫെയർ ൻ ലൗലി തന്നെയാണ് എന്നോട് ആര് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ബെസ്റ്റ് എന്ന് പറയുള്ളൂ